ഈ ചിത്രകല അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് അത് നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടു ഒരാൾക്ക് പഠിപ്പിച്ചുകൊടുത്ത് നമുക്ക് എത്രത്തോളം സക്സസ്സാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ നമ്മള് രണ്ട് ഒരാളെ നമ്മള് പഠിപ്പിച്ച് അത്യാവശ്യം ആള് വര വരയ്ക്കാൻ തുടങ്ങിയാൽ ചില സമയത്ത് പെട്ടെന്ന് നമുക്ക് അഹങ്കാരം വരും ഞാനെന്തും വരയ്ക്കും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഒരഹങ്കാരം തലയിൽ കയറും അത് പ്രശ്നമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അയാള് ചെയ്തുക്കൊണ്ടിരിക്കുന്ന വർക്കിനെ അത് ബാധിക്കും ഓട്ടോമാറ്റിക്കലി നമ്മള് പിന്നെ അയാളെന്താണ് ഉദ്ദേശിക്കുന്നത് അത് യൂസ് അല്ലെങ്കിൽ അയാൾക്ക് അതൊരു ചെയ്യാൻ മനസ്സിലാവില്ല അല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം തലയ്ക്ക് കയറുമ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ള ആ ഒരു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ചിന്ത അയാൾക്ക് കിട്ടില്ല പിന്നെ ഓരോ ഓരോ വരയ്ക്കും ഇപ്പോൾ നമ്മള് നോക്കണമെന്ന് പറയുമ്പോൾ ഈ ചിത്രകലയ്ക്ക് യൂസ് ചെയ്യണ ബ്രഷുകൾ അതുപോലെത്തെ കാര്യങ്ങള് ഓരോന്നിനും ഓരോ തരത്തിലുള്ള ബ്രഷാണ് ഇപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ബ്രഷിൻ്റെ വലിപ്പം സൈസ് അതിനനുസരിച്ച് ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെൻസിലാണെങ്കിലും അതിനു വേണ്ട പോർട്രേറ്റ് ആണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പെൻസിൽ തന്നെ വിവിധതരത്തിലുണ്ട് എച്ച് എച്ച്ന്ന് ടു എച്ച് ത്രീ എച്ച് ഫോർ അങ്ങനെ പലതരത്തിലുള്ള പെൻസിലുകൾ അപ്പോൾ അതായത് അതിലുപയോഗിക്കുന്ന ഉപകരണം മുതല് പലതിലും പല വ്യത്യാസങ്ങളും വന്നുകൊണ്ടിരിക്കും അതുകഴിഞ്ഞാൽ നമ്മളെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാൻ പല മാർഗങ്ങളും ഉണ്ടതിൽ അപ്പോൾ അത് ഒരു തുടക്കക്കാരനെന്നൊരു രീതിയിൽ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലായെന്ന് പറയുമ്പോൾ അത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിലേക്ക് എത്തുകയുമില്ല പിന്നെ നമ്മള് പകുതി വഴിയിൽപ്പെട്ട അവസ്ഥയാവും